ഇന്ത്യയില് ഏറ്റവും കാലാവസ്ഥവ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയില് ആണ് ഇന്ത്യ ആ അഞ്ചോ ഏഴോ സ്ഥാനതെങ്ങാണ്ടാണ് ആ ഇപ്പോൾ ഏറ്റവും കൂടുതലും ആ ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നതും ഇന്ത്യയിലും അങ്ങനെ ഉള്ള പല സംസ്ഥാനങ്ങളും ആണ് ഓരോ ഓരോ സംസ്ഥാനത്തിനും ഭയങ്കരമായ ചില സ്ഥലങ്ങളിൽ ചൂട് കൂടുതലും ചില സ്ഥലങ്ങളിൽ കുറവും ചിലയിടത്ത് ഭയങ്കര മഴ ഇങ്ങനെയുള്ള പല വ്യതിയാനങ്ങലും ആണ് അനുഭവിക്കുന്നത് മനുഷ്യരുടെ ഇതുകൊണ്ട് തന്നെയാണ് കാരണം മരങ്ങളൊക്കെ വച്ചുപിടിപ്പിക്കാണ്ട് മരങ്ങളൊക്കെ വെട്ടി കളഞ്ഞ് അങ്ങനെയൊക്കെയാകുമ്പോൾ മഴ പെയ്യാണ്ട് മഴ പെയ്യുകയുമില്ല ചൂട് ഭയങ്കര കൂടുതലുമാണ് അതുപോലെ തന്നെ ഒത്തിരിയെറെ പ്രവത്തനമുണ്ട് ഇന്ത്യയില് താപതരംഗങ്ങളുടെ ആവർത്തനം തീവ്രതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഭയങ്കര ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് പണ്ടത്തെക്കാലും പണ്ടൊക്കെ കുറച്ച് ചൂട് ഉണ്ടായിരുന്നുള്ളു ഇപ്പം മറ്റേ സൂര്യൻ അടുത്തുകൊണ്ട് ഇരിക്കുകയാണെന്നൊക്കെയാണ് റിപ്പോർട്ടുകള് വരുന്നത് പക്ഷെ ഈ മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് ഇവര് മരങ്ങള് വെച്ചുപിടിപ്പിക്കാണ്ട് മരങ്ങള് ഉള്ള മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയെ നശിപ്പിച്ച് അങ്ങനെ പ്രകൃതി തന്നെ രോക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഴ വന്ന് ഭയങ്കര പ്രളയമാവുന്നു ആ വീടുകളൊക്കെ ഒലിച്ച് പോവുന്നു അങ്ങനെ ഉള്ള പല സാഹചര്യങ്ങളും ഇപ്പോൾ സംഭവിക്കുന്നുമുണ്ട് ഈ കഴിഞ്ഞ ആ മെയ് മാസത്തിലും ഒക്കെ പാകിസ്താനിലും ഇന്ത്യയിലും കടുത്ത ചൂടാണ് രേഖപ്പെടുത്തിയത് പല സ്ഥലങ്ങളിലും താപനിലയൊക്കെ ഏറ്റവും കൂടുതല് വന്നിരിക്കുന്നത് നാല്പത്തേഴ് അമ്പത്തൊന്ന് അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കാലാവസ്ഥ വ്യതിയാനം ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കാലാവസ്ഥ വ്യതിയാനം ഏറ്റവും കഴിഞ്ഞ വർഷത്തേക്കാളും ഒക്കെ കൂടുതലാണ് ഈ വർഷം ചൂട് അനുഭവപ്പെട്ടത് എല്ലാ വർഷത്തേക്കാളും ഇപ്പം ആ നൂ നൂറുവർഷത്തിലൊക്കെ ചൂട് വരുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോൾ എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും ആ സൂര്യൻ ഭയങ്കരമായിട്ട് ചൂടായികൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചൂടനുഭവപ്പെടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതല് ആ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്നത് ആസ്സാമ് അവിടെയൊക്കെ കഴിഞ്ഞ ഒര് വാർത്തയിലൊക്കെ രൂക്ഷമായ മണ്ണിടിച്ചിലും വെള്ളപൊക്കവുമാണ് ഇപ്പോൾ തന്നെ വെള്ളപൊക്കമാണ് കടലൊക്കെ രോക്ഷാകുലനായിക്കൊണ്ടിരിക്കുകയാണ് ആ അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും കാലാവസ്ഥ വ്യതിയാനം വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്